സ്റ്റിച്ചിങ്ങ് പഠിക്കണം എന്ന് നല്ലപോലെ ആഗ്രഹമുണ്ട് പണ്ട് കുറച്ചുനാൾ പഠിച്ചിരുന്നു പഠിക്കുന്ന സമയത്ത് വെക്കേഷൻ ടൈമിൽ പഠിച്ചിരുന്നു പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കമ്പ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ സ്വന്തമായിട്ട് എല്ലാവരും സ്ത്രീകൾ ബൊട്ടീക്ക് തുടങ്ങുകയാണ് ഏറ്റവും കൂടുതൽ സക്സസ്സ് ആവുന്നൊരു മേഖലയും കൂടിയാണ് കാരണം ഇപ്പോൾ എല്ലാവർക്കും ഡ്രസ്സിങ്ങിലും ഡ്രസ്സിങ്ങ് സെൻസൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാലഘട്ടമാണ് പണ്ടത്തെപ്പോലെയല്ല എല്ലാവരും നല്ല ഭംഗിയുള്ളതും നല്ല ഇതിൽ ആ ഒരു ഒരു ഡ്രസ്സ് കാണുമ്പോൾ അതിലേക്കൊരു അട്രാക്ഷൻ തോന്നണ രീതിയിലുള്ള ഡിസൈൻസാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തിടുന്നത് കസ്റ്റമേഴ്സിന് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽതന്നെ അതിനോടൊരു അട്രാക്ഷൻ തോന്നുകയും പറഞ്ഞ വില കൊടുത്ത് മേടിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഒരു ബാർഗേനിങ്ങും ഇല്ലാണ്ടാണ് മേടിക്കുന്നത് പിന്നെ ഇപ്പോൾ എനിക്ക് കുറച്ചുംകൂടി ഇൻട്രസ്റ്റ് പഠിക്കാനായിട്ടുള്ള ഒരു താല്പര്യം തോന്നിയിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്ക് ഹാൻഡ് വർക്കാണ് സീക്വൻസും ഇതൊക്കെ വച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് അതിന് ഭയങ്കര വിലയും കൂടുതലാണ് ഒരു ചെറിയൊരു കഴുത്തിൽ നെക്കിലൊരു ഹെവി വർക്ക് ചെയ്തതിനൊക്കെയൊരു എമർജൻസിയായിട്ട് സ്ലീവിലും നെക്കിലൊക്കെയൊരു ഹെവി വർക്ക് ചെയ്ത് വൺ വീക്കിൽ മേടിച്ചതിന് ഫോർ തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡാണ് ചിലവായത് അപ്പോൾ അങ്ങനത്തെയൊരു വർക്ക് അതിനുശേഷം എനിക്ക് സ്വന്തമായി പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് ഈസിയാണ് പക്ഷെ ഈ പറഞ്ഞതുപോലൊരു ക്ഷമയും നമുക്കൊരു നല്ലപോലൊരു ഹാർഡ് വർക്കിങ്ങ് മൈൻ്റുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ട് അതുകൊണ്ട് എനിക്ക് എപ്പോഴുള്ള ഒരാഗ്രഹം ഒന്ന് ഹാൻഡ് വർക്ക് എംബ്രോഡറി വർക്ക് ചെയ്യുന്നതൊന്ന് പഠിക്കണം എന്നുണ്ട് പിന്നെ അതുപോലെത്തന്നെ സ്റ്റിച്ചിങ്ങും പഠിക്കണം ഇപ്പോഴെല്ലാം മെഷീൻ കുറച്ചുംകൂടി ഈസിയാണ് പണ്ടത്തെപ്പോലെ ചവിട്ടേണ്ട ആവശ്യമില്ല എലക്ട്രിക്കിൽ എല്ലാ സാധനങ്ങളും അവൈലബിളാണ് അവൈലബിളാണ് എലക്ട്രിക് മെഷീൻ പിന്നെ അതേപോലെ ഓരോ പാറ്റേണിൽ അടിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ഇപ്പോൾ അവൈലബിളാണ് ഇപ്പോൾ പ്രിൻ്റിങ്ങ് ആണെങ്കിലും എല്ലാം അവൈലബിളാണ് പിന്നെ മ്യൂറൽ ആർട്ട് എന്നു പറയുന്നൊരു സംവിധാനം അതുപക്ഷെ ഹാൻഡ് അത് ഹാൻഡ് വച്ചിട്ടുതന്നെയാണ് ചെയ്യുന്നത് മെഷീൻ വച്ചു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുറച്ചുംകൂടി സിമ്പിളാണ് ഇപ്പോൾ അവിടുത്തെക്കാളൊക്കെ ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻ്റ് വന്നിരിക്കുകയാണ് ഈ മേഖലയിൽ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലും ഒക്കെ അതുകൊണ്ടുതന്നെ എനിക്ക് ഇപ്പോൾ ഏറ്റവും ആഗ്രഹം സ്റ്റിച്ചിങ്ങ് കംപ്ലീറ്റ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് കൂടുതലും എനിക്ക് ആഗ്രഹിക്കുന്നത് ഞാൻ ചുരിദാറ് സാരി ബ്ലൗസ് അതൊക്കെ പഠിക്കാനാണ് കുട്ടികളുടെ ചെറിയ ചെറിയ ഫ്രോക്കുകൾ അതൊക്കെ പിന്നെ അതേപോലെ ഈ എംബ്രോയ്ഡറി വർക്ക് ഹാൻഡ്മെയ്ഡ് ഹാൻഡ് വർക്ക് പഠിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം